പുരുഷന്മാർ നൃത്തം പഠിക്കുന്നത് എന്തും നല്ലത് കാരണം സമൂഹത്തിൽ സ്ത്രീ പുരുഷനും തുല്യരാണെന്നാണല്ലോ നമ്മള് പറയുക അപ്പോള് ഒരിക്കലും സ്ത്രീയുടെ മാത്രം കുത്തക ആണെന്നില്ല നേരത്തെ പഴയ കാലങ്ങളിൽ സ്ത്രീ മാത്രം അഭ്യസിച്ചുകൊണ്ടിരുന്ന ഒരു കലയാണ് നൃത്തമെങ്കിലും അതിനെ കാലത്ത് ഇപ്പോള് കാലം മാറിയതനുസരിച്ച് കോലവും മാറണമെന്നാണല്ലോ പറയുന്നത് അപ്പോള് പുരുഷന്മാർ നൃത്തം അഭ്യസിക്കുക അവരുടെ ഓരോത്തർക്കും അഭിരുചി അനുസരിച്ച് അവരുടെ കലയെ മുന്നോട്ടു കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ പുരുഷനോ സ്ത്രീയോ സ്ത്രീക്ക് മാത്രേ ആകാവൂ എന്നുള്ള ഒരു കലയല്ല ഏതൊരു വ്യക്തിയും അതിൻ്റെ തനിമയോടെ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും കണ്ണിനു നയനാനന്ദകരമായ ഒരു കാര്യമാണ് ഏത് ക കലയും മറ്റുള്ളവർക്ക് സന്തോഷവും മനസ്സിന് ആനന്ദവും നൽകുന്നൊരു കലയാണല്ലോ അതാരവതരിപ്പിക്കുന്നതാണെങ്കിലും അതെത്ര ഭംഗിയാക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് ഒരാളുടെ കുത്തക ആണോ പെണ്ണോ വ്യത്യാസമില്ലാതെ ആണ് പെണ്ണുങ്ങൾ മാത്രം കുത്തകയാണെന്നുള്ളൊരു രീതി അത് പണ്ടുകാലത്ത് ഒരു പഴയ കാലത്തെ എന്നുള്ള ആ പഴമക്കാരുടെ പറച്ചിലെന്ന് പറ ആ അതിന് അതിപ്പോള് ഒരിക്കലും നിലനിൽക്കത്തില്ല കാരണം ആർക്കെന്ത് കഴിവുണ്ടെന്നുള്ളത് അവന് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് മുന്നോട്ടു വരുന്നവരെ കൂടെ കൈ പിടിച്ച് ഉയർത്തുകയും അവരെ സമൂഹത്തിൽ നല്ലവരും ആക്കി കൊണ്ടുപോവുകയും ചെയ്യുകയും എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിൻ്റെ കാലത്ത് ചെയ്യാനുള്ളത് ആരെയും നിരുത്സാഹപ്പെടുത്തി ഇടിച്ചുതാഴ്ത്താൻ തരം താഴ്ത്തുകയും അല്ലെങ്കില് കൊള്ളില്ല നീ എന്ത് ചെയ്താലും കൊള്ളില്ല അല്ലെങ്കില് നിറമോ മതമോ ജാതിയോ വർണമോ ഇതൊന്നും അല്ല ഒരാളെ സമൂഹത്തിനുപകരിക്കുന്നതും ഗുണകരമാക്കുന്നതും വ്യക്തി വ്യക്തിത്വവും ആ വ്യക്തി എന്ത് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ നന്മ അതിൻ്റെ മേന്മ ഭംഗി എത്ര ഇതാണ് അതിനെ ആസ്വദിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള കഴിവ് ഇന്നത്തെ ജനത്തിന് സമൂഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നുള്ള എന്നതാണ് ഇന്ന് ഇന്നത്തെ ആധുനിക കാലത്ത് വേണ്ടതെന്ന് നാടോടുമ്പോള് നടുവേ ഓടണം എന്നാണല്ലോ അപ്പോള് ഇന്നത്തെ കാലമനുസരിച്ച് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് എങ്ങനെ ഓരോ വ്യക്തിക്കും ഉയർച്ചയും അവരുടെ ഭാവി നന്മകരവും ആക്കാമെന്നുള്ള ആ ഒരു നിലപാടാണ് ഏതൊരു വ്യക്തിയും സമൂഹവും എടുക്കേണ്ടത് അതനുസരിച്ച് കുട്ടികളെ ചെറുപ്പം മുതലേ ആൺകുട്ടികളെയും പെൺകുട്ടിക പെൺകുട്ടികളെയും പ്രോത്സാഹിപ്പിച്ച് അവരെ അതിന് തക്കവരും കൊള്ളുന്നവരുമാക്കി സമൂഹത്തിൽ ആക്കിത്തീർക്കുക എന്നതാണ് ഇന്നത്തെ തലമുറയുടെ ഉത്തരവാദിത്തം ആർക്കേത് സഹായമാണ് ആർക്ക് ഇപ്പോള് വേണ്ടത് അതനുസരിച്ച് പെരുമാറാനും കലയിലായാലും ഏതൊരു കാര്യത്തിലും അവരെ മുന്നോട്ട് നയിക്കാൻ ചെയ്യുന്നുള്ളതാണ് ഏതൊരു കലയും എന്നതുപോലെ ഏതൊരു കാര്യവും ഇന്നത്തെ സമൂഹത്തിൽ പ്രയോജനപ്പെടുന്നത് അല്ലാതെ ഏതിനെയും കാണുമ്പോള് അത് വിമർശിക്കാൻ എ ക്കാൻ സമൂഹത്തിലാൾക്കാരുണ്ടായിരിക്കാം അതിനെ അവഗണിച്ചുകൊണ്ട് നന്മയും പ്രോത്സാഹനവും മറ്റുള്ളവർക്ക് പ്രചോദനവും നൽകുന്ന ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതൊരു വ്യക്തിയും മുന്നോട്ട് നയിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക സമൂഹം നന്മയിൽ മുന്നോട്ടു പോകണമെങ്കിൽ നല്ല ആൾക്കാരും നല്ല മനസ്സുള്ളവരും സമൂഹത്തിലെന്നും ഉണ്ടായിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തെങ്കില് മാത്രമേ അല്ലെങ്കില് ഏതു കല എന്നുള്ളത് പിന്നെ ആരഭ്യസിക്കുന്നു എന്നുള്ളതല്ല അതിനെ എത്ര മേന്മയുള്ളതും മികച്ചതുമാക്കിത്തീർക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതനുസരിച്ച് ആളുകൾ മുന്നോട്ടു വരുവാനായിട്ട് കൂടുതൽ പേരിതിന് തയാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരഭിപ്രായം